ഞാൻ ഇതുവരെ ഫോട്ടോ എടുത്തിട്ടുള്ളത് എനിക്കൊരൂ ഞാനൊരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറൊന്നുമല്ല പിന്നെന്താണ് ഞാനിതുവരെ ക്യാമറയിലൊന്നുമധികമങ്ങനെ ഫോട്ടോ ഒന്നോ രണ്ടോ ഫോട്ടോസ് മാത്രമേ ക്യാമറയിലെടുത്തിട്ടുള്ളൂ ബാക്കി മുഴുവൻ ഞാൻ ഒരു എന്താണ് മൊബൈൽ ഫോട്ടോഗ്രാഫിയാണ് ഞാൻ കൂടുതൽ ചെയ്യാറുള്ളത് മൊബൈൽ ഫോട്ടോഗ്രാഫിക്കകത്ത് തന്നെ ഇപ്പോഴെന്താണ് എന്താണ് നേയ്ച്ചറിന്റെ പിക്ചേഴ്സ്സ് കാര്യങ്ങള് അങ്ങനാണ് എടുത്തിട്ടുള്ളത് പോട്ട്റേയ്റ്റ് ഫ്രണ്ട്സിന്റെ രണ്ട് മൂന്നെണ്ണമെടുത്തിട്ടുണ്ട് പക്ഷെ എനിക്ക് കൂടുതലല്ലാതെ എടുക്കാനാണ് കുറച്ചുകൂടെ താൽപ്പര്യം